സോ ഞാൻ പറയാണെങ്കിൽ ഡേ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് റണ്ണിങ്ങിലൂടെയാണ് കാരണം അതില്ലാച്ചാൽ നമുക്കൊരു ഡേ കമ്പ്ലീറ്റ് ആകാത്ത പോലത്തെ ഒരു ഫീൽ ആണ് ബികോസ് ദാറ്റ് മച്ച് എനർജി നമുക്കാ റണ്ണിങ് കഴിയുന്ന വരേയ്ക്ക് നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് മെന്റലി മാത്രമല്ല ഫിസിക്കലിയും നമുക്കൊരു സ്റ്റാർട്ട് ബിഗിനേഴ്സ് ആണെങ്കിൽ ടൈഡ്നെസ്ണ്ടാകും അത് സ്വാഭാവികം ആണ് പക്ഷെ അതൊരിക്കലും റണ്ണിങ് ചെയ്യുന്നത് കൊണ്ടുള്ള നെഗറ്റീവ് ആയിട്ട് ആർക്കും പറയാൻ പറ്റില്ല നമ്മളീ റണ്ണിംഗ് ചെയ്ത് ചെയ്ത് നമ്മുടെ ഫിറ്റ്നസ് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വരുമ്പഴാണ് നമ്മളുടെ ടൈഡ്നെസ് മാറാൻ തുടങ്ങുക സോ രാവിലത്തെ മോർണിങ്ങിലുള്ള റണ്ണിങ് എന്ന് പറയുമ്പോൾ ആ നല്ലതാണ് നമ്മളുടെ മൈൻഡ് ഫ്രഷ് ആകും ബോഡി കപ്ലീറ്റ്ലി ഫ്രഷാകും രാവിലെന്ന് പറയുന്നത് ഫ്രഷ് എയർ ആയിരിക്കും അപ്പോൾ നമ്മളീ റണ്ണെയ്യുന്ന ടൈമില് ഒരുപാട് ബ്രീത്തേയ്യും ഈ ബ്രീതെയ്യുമബം നമ്മള് ഫ്രഷ് എയറാണ് രാവിലെ ഇങ്ങനെ വലിച്ച് കയറ്റുന്നത് സൊ അത് നമ്മുടെ ബോഡിക്കും നല്ലൊരു ഗുണമാണ് ചെയ്യുന്നത് പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള അനാവശ്യമായിട്ടുള്ള കലോറിസ് നമ്മള് കിടക്കുന്നുണ്ടാകും നമ്മള് ഡൈലി കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കലോറിസ് ഒരുപാട് ബോഡിയില് കിടക്കുന്നുണ്ടാകും സൊ നമ്മള് വെറുതെ ഇങ്ങനെ വീട്ടില് ഇരുന്ന് കഴിഞ്ഞാൽ കലോറിസ് അങ്ങനെ കിടന്നിട്ട് ഫാറ്റായി മാറും എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല ഫാറ്റ് നിറഞ്ഞ് നമുക്ക് മറ്റു പല അസുഖങ്ങളും വരാൻ കാരണം ഉണ്ട് നമ്മൾ റണ്ണിങ് ചെയ്യുമ്പം നമ്മളുടെ കലോറിസ് ബേൺ ചെയ്യാണ് അവിടെ കലോറീസ് ബേൺ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ബോഡിക്ക് ഫാറ്റും ഫാറ്റ് വരാനുള്ള ചാൻസ് കമ്മി ആണ് ഫാറ്റ് മുഴുവൻ ബേൺ ആയി പോവുകയാണ് സൊ നമ്മളുടെ ഒരുപാട് ഹെൽത്തിങ് ഹെൽത്ത് ബെനിഫിറ്റ്സ് റണ്ണിങ് ചെയ്യുന്നതുകൊണ്ട് ഉണ്ട് പിന്നെ എന്തോ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് പറയാന്നു വെച്ചാൽ നമുക്ക് സ്റ്റാമിന ഇമ്പ്രൂവെയും സൊ നമ്മളെപ്പോഴും എന്തെങ്കിലും ആക്ടിവിറ്റീസില് ഏർപ്പെടുവാണെങ്കിൽ നമുക്കത് നല്ല എനെർജിറ്റിക്കായിട്ട് നമുക്കാ ആക്ടിവിറ്റി കമ്പ്ലീറ്റെയ്യാം സൊ അതാണൊരു സ്പോർട്സ്മാനെയും ഒരു നോർമൽമാനെയും തമ്മില് വ്യത്യസ്തമാക്കുന്നത് നമുക്ക് നമ്മളുടെ സ്റ്റാമിന നമ്മള് മെന്റലിയും ഫിസിക്കലിയും സ്ട്രോങ്ങാണ് സൊ നമുക്ക് ഏതൊരു ആക്ടിവിറ്റിയും സിംപിളായിട്ട് ചെയ്ത് തീർക്കാം